കന്നുകാലികൾ എന്നു പറയുന്നത് പൊതുവെ ഇപ്പോൾ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഇതാണ് അപ്പം അവയെ നമ്മൾ കൂടുതലായിട്ടും പാലിനു വേണ്ടിയൊക്കെയാണ് വളർത്തുന്നത് അപ്പം ഇങ്ങനെ വളർത്തുന്ന കന്നുകാലികൾക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനിച്ച കിടാക്കൾ നമ്മൾ ഭയങ്കരമായിട്ട് നല്ലതുപോലെ ശുശ്രൂഷിച്ചു പരിപാലിച്ചാണ് നോക്കുന്നത് അതിന് അവയുടെ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അങ്ങനെ ആരോഗ്യ പരിപാലനം നടത്തിയില്ലെങ്കിൽ അവയ്ക്ക് പിന്നീട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായവയൊക്കെ ഉണ്ടാവാൻ വളരെ അധികം ഇത് കൂട്ട് സാധ്യതകളാണ് കണ്ടുവരുന്നത് ഇന്ന് അങ്ങനെ അങ്ങനെ കന്നുകാലികൾ ഉണ്ടായാൽ തന്നെ അതിനെ ആദ്യമേ നന്നായി തുടച്ചു വൃത്തിയാക്കി അവയെ അവയെ അവയെ ഒരു ഒരുക്കൂട്ടും കേടുവരാതെ അമ്മയുടെ ശിശ്രൂഷയിൽതന്നെ വെച്ച് അവയെ വളരെയധികം നല്ലതുപോലെ ശുശ്രൂഷിച്ചുകൊണ്ട് പരിപാലിച്ച് അവയെ അവയെ നല്ല രീതിയിൽ പരിപാലിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക അങ്ങനെ പരിപാലിച്ചാൽ മാത്രമേ അവ പിന്നീടുള്ള കാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ വളർന്ന് അവയ്ക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു കേടുപാടോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവയെ നല്ല രീതിയിൽ ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വളർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവയ്ക്കുള്ള ശുശ്രൂഷ വളരെ അവയെ നല്ല രീതിയിൽ പരിപാലിച്ച് ശുശ്രൂഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ടും മുൻകൈയെടുത്ത് നിലകൊള്ളുക നിലകൊള്ളുന്നത് തന്നെയാണ് എല്ലാ ആൾക്കാരും ചെയ്യുക കാരണം അങ്ങനെ കന്നുകാലികളെ പരിപാലിക്കുന്നവരാണ് വളർത്തുന്നവരാണെങ്കിൽ തന്നെ അവരങ്ങനെ കന്നുകാലി കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കിടാങ്ങളെ അത്രയ്ക്ക് ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അത്രയ്ക്ക് നോക്കി മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ അവയെ ഒന്ന് എടുക്കുമ്പോൾ പോലും അവർ അത്രത്തോളം ശ്രദ്ധിച്ചു മാത്രമേ അത് ചെയ്യാറുള്ളൂ അവയെ അത്ര അവയവൻ്റെ ശരീരം അത്ര ഒരു കുഞ്ഞിനു സമാനം തന്നെയാണ് അത്രത്തോളം കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ കിടാങ്ങളായതുകൊണ്ട് തന്നെ അവയ്ക്ക് അത്രത്തോളം പരിപാലനവും അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധയും ആവശ്യമാണ്